ആ എനിക്കൊരു ലോണ് വേണമായിരുന്നു എന്റെ പേര് അമൃത സംരംഭം തുടങ്ങാൻ ആയിരുന്നു ഒരു കോഴി ഫാമ് ആ ഒരു വൺ ഏക്കർ വരും നമുക്കിപ്പോൾ എത്ര എമൗണ്ട് കിട്ടും ആ ഒന്നാണ്

ആ

ഒരു ഫാമിന് എത്ര കിട്ടുമെന്നാണ് ഒരേക്കറയാണെങ്കിൽ എത്ര ലക്ഷം കിട്ടും ആ ഗോൾഡ് എന്തെങ്കിലും വെച്ചാൽ ആ പത്ത് പവനുണ്ട് ഇത് എത്ര ശതമാനം പലിശയാ തരുന്നത് അടവൊക്കെ എങ്ങനെ മന്ത്ലി അടവാണോ മന്ത്ലി അടവാണോ വരുന്നത് ആണോ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ അപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടേ ഇപ്പോൾ അവിടെ

ചെക്ക് ആയിട്ടാണോ കിട്ടുക അതോ ബാങ്കിലേക്കാണോ ചെക്ക് ആയിട്ടാണോ കിട്ടുകയെന്ന് എമൗണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫെർ ചെയ്താൽ പോരെ ആ ഓക്കെ